ഹലോ ഹായ് നമ്മുടെ പണ്ടത്തെ തലമുറയെയും ഇപ്പോഴത്തെ തലമുറയെയും നമുക്ക് താരതമ്യം ചെയ്യാൻ ഒരിക്കലും പറ്റില്ല എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തില് എനിക്ക് പണ്ടത്തെ ആൾക്കാർ ആ സാഹചര്യങ്ങളില് ജീവിച്ചതുകൊണ്ട് അവർക്ക് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനെ അംഗീകരിക്കാൻ കുറച്ച് പിന്നെ കുറവാണ് സാധ്യത വളരെ കുറവാണ് എന്താണെന്നു പറഞ്ഞാല് അവർ ക്ക് അവരുടേതായ കാഴ്ചപ്പാട് പിന്നെ പണ്ടത്തെ ആ ഒരു രീതി അവര് ജീവിച്ചുവളർന്ന സാഹചര്യങ്ങള് അതെല്ലാം ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷന് അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല ഞാൻ എൻ്റെ ടൈം കുറച്ചൊരു മിഡിൽ ലെവലായതുകൊണ്ട് നമ്മക്കത് രണ്ടും താരതമ്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കില് പിന്നെ പണ്ടത്തെ ആൾക്കാരെന്ന് പറഞ്ഞാല് പണ്ടത്തെ ആൾക്കാരെ നമുക്ക് അവരോട് പെരുമാറേണ്ട രീതിയും ഇപ്പോഴത്തെ കുട്ടികളോട് പെരുമാറേണ്ട രീതിയും നമുക്ക് നല്ല നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു നമ്മളെ ഒരു മിഡിൽ ലെവലായതുകൊണ്ട് പിന്നെ എന്റെ അനുഭവം എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറേ കുറേയൊക്കെ ബഹുമാനക്കുറവ് കാര്യങ്ങള് അങ്ങനത്തെ എല്ലാം ഉണ്ട് അത് എൻ്റെ അനുഭവത്തില് ഉണ്ടാവുകയും ചെയ്തിന് പിന്ന മുമ്പത്തെ ആൾക്കാരും അതേ അതേപോലെ തന്നെ മുമ്പത്തെ ആൾക്കാരും മൂത്ത ആൾക്കാരെല്ലാം കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവര് ചിലപ്പോള് നമ്മളെ ഒരു ബിഹേവിയല് ബിഹേവിയറെല്ലാം കാണുമ്പോള് അവർക്ക് ചിലപ്പോള് അത് അക്സെപ്റ്റ് ചെയ്യും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അത് കുറേ ആൾക്കാർ മുമ്പില് നമ്മള് കണ്ടിട്ടുണ്ട് മുമ്പത്തെ ആൾക്കാരുടേത് മുമ്പത്തെ ആള്ക്കാര് എന്നു പറഞ്ഞാല് ഒന്നുമില്ലാതെ അങ്ങനെ എല്ലാം വളർന്നിട്ട് വന്ന ആള്ക്കാരാണ് ഇപ്പോള് അതിന് ഒരു മുടക്കവും ഇല്ല നമുക്ക് എന്ത് നമ്മളുടെ നമ്മളുടെ നമ്മളുടെ ആവശ്യങ്ങള് എന്തുതന്നെ ആയാലും നമുക്കത് പ്രൂഫെയ്ത് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ മുമ്പത്തെ ജീവിത രീതി ഒരിക്കലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുന്നില്ല മനസ്സില മനസ്സിലാക്കിയിരുന്നില്ല അറിയുന്നില്ല എന്നല്ല നമ്മൾ പറഞ്ഞ് കൊടുക്കുന്നില്ല പിന്ന അവർക്ക് നമ്മള് ഒരു ബുദ്ധിമുട്ടും വരാതെ നോക്കുമ്പോള് നമ്മളുടെ ഇത് മുമ്പത്തെ ആൾക്കാർക്ക് കുറേ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് നമ്മള് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നില്ല അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ കുട്ടികള് കുറച്ച് മാറിയിട്ട് അവരുടെ ലോകത്താണ് അവര് ജീവിക്കുന്നില്ലേ അവർക്ക് ഇതൊന്നും വേണ്ട അവർക്ക് എന്നു പറഞ്ഞാല് എല്ലാം എല്ലാ സാധനവും കൈകളിലേക്കെത്തുന്നുണ്ട് പിന്നെ എല്ലാ ഇതും ഒരു റൂമില് അടച്ച് പൂട്ടിയിട്ടാണ് അവരുടെ ജീവിത രീതി എന്ന് പറഞ്ഞാല് ഇപ്പോള് ഇപ്പോള് നമ്മളുടെ ഒരു നാട്ടില്തന്നെ ഒരു കുട്ടികളുണ്ടെങ്കില് ആ കുട്ടികൾക്ക് നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും അറിയാൻ സാധിക്കുന്നില്ലേ മുമ്പത്തെ ആൾക്കാരെന്ന് പറഞ്ഞാല് കുറച്ച് വൈകുന്നേരങ്ങളില് കുറച്ച് കൂടി നില്ക്കലും കാര്യങ്ങളും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു ഇത് പണ്ടത്തെ ആൾക്കാർക്ക് ഇപ്പഴത്തെ ആൾക്കാർക്ക് അങ്ങനെയുള്ള ഒരു ഇതുമില്ല എല്ലാം ഫോണിലും അങ്ങനെ എല്ലാം ആയതുകൊണ്ട് പിന്ന അവർക്ക് നമ്മളെ ഓൺലൈൻ ഫുൾ ഓൺലൈനായത് കൊണ്ട് ഗെയിം ഗെയിമും പിന്ന കളിയും എല്ലാം ഓണ്ലൈന് തന്നെ ആയതുകൊണ്ട് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പിന്ന പണ്ടത്തെ രീതിയെന്ന് പറഞ്ഞാല് പണ്ടത്തെ ആൾക്കാർക്ക് കുറച്ചൊരു വൈകുന്നേരങ്ങളില് കുറച്ച് കൂടിയിരിക്കല് ഒരു കളിയും അങ്ങനെയെല്ലാമില്ലേ ഒരു ജീവിതരീതിയായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവർക്ക് അസുഖങ്ങള് അത് ഇതെല്ലാം കുറേ കുറവായിരുന്നു ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അല്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളും അതെല്ലാം വരാനുള്ള സാഹചര്യവും പിന്നെ പണ്ടത്തെ എന്ന് പറഞ്ഞാല് പണ്ട് ഇങ്ങനെ കളിയും ക ഇത് കാര്യങ്ങളും പിന്നെ പണിയും അതെല്ലാമായതുകൊണ്ട് ഇപ്പോഴത്തെ വർക്ക് എന്നു പറഞ്ഞാല് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇടയില് വർക്ക് എന്നു പറഞ്ഞാല് ഫുൾ ഓൺലൈൻ ജോബ് അങ്ങനെ അങ്ങനെ എല്ലാം ആയിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികള് നമ്മള് പണ്ടത്തെ ആൾക്കാര് ആ രീതിയിലല്ല അതുകൊണ്ടുതന്നെ പിന്നെ നമുക്ക് പണ്ടത്തെ തലമുറയെയും ഇപ്പോഴത്തെ തലമുറയെയും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ഈ പറയുന്നതുപോലെ നമുക്കുതന്നെ പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ മുമ്പില് പോയിട്ടാകുമ്പേ നമുക്കുതന്നെ ചിലപ്പോള് നമ്മളുടെ നമ്മളുടെ വരെ നമ്മളുടെ രീതി കാണുമ്പോള് അവർക്ക് അത് നമ്മളൊരു പഴഞ്ചൻ ആ രീതിയില് കാണുന്നുണ്ട് നമുക്കും ഈ നമ്മ നമ്മള് ഈ ലെവലായതുകൊണ്ട് രണ്ട് ടീമിനെയും നമുക്ക് പിന്ന ഇതാക്കിയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു കൺട്രോളാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് നമ്മള് മുമ്പത്തെ ആൾക്കാരോട് ബിഹേവ് ചെയ്ജു ചെയ്യുന്നതും ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മള് പെരുമാറുന്നതും ആ രണ്ട് രീതിയും രണ്ട് തരത്തില് നമുക്ക് പിന്നെ മനസ്സിലാക്കാന് സാധിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ അങ്ങനത്തെ മോശം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കുഞ്ഞോളെ കുഞ്ഞോളെ പിന്നെ കുറേ പിന്നെ മോശം സ്വഭാവങ്ങളും മോശം ഇത് എൻ്റെ എന്റെ അനുഭവത്തില് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇങ്ങോട്ട് അതേപോലെതന്നെ മറ്റേ നമ്മളുടെ പണ്ടത്തെ ആൾക്കാരായാലും പണ്ടത്തെ ആൾ ആൾക്കാരുടെ ഭാഗത്ത് നിന്നും എനിക്ക് മോശം കാര്യങ്ങള് പ്രവൃത്തികള് ഉണ്ടായിട്ടുണ്ട് മോശമെന്ന് പറഞ്ഞാല് അങ്ങനെയല്ല അവരുടെ സ്വഭാവത്തില് നമ്മള് പിന്നെ ചെയ്യുമ്പോള് അത് അല്ല നമ്മള് എന്തെങ്കിലും പറയുമ്പോള് അത് അങ്ങനെയല്ല അങ്ങനെ ചെയ്തുകൂടാ എന്നുള്ള രീതിയില് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും പിന്നെ ഇപ്പോഴത്തെ പിള്ളേര് അതങ്ങനെ ചെയ്താലെന്ത് എന്നുള്ള ആ ചോദ്യത്തില് വരും ഇപ്പോള് അത് രണ്ടും നമുക്ക് നമുക്കൊരു എന്തെങ്കിലും ഒരു സംഭവം ഇഷ്ടപ്പെടാതെ വരുമ്പോള് അത് അവരോട് പറയുമ്പോള് അത് അവര് അക്സെപ്റ്റ് ചെയ്യാൻ ഇത് ശ്രമിക്കുന്നില്ല ഇപ്പോഴത്തെ തലമുറ എന്നു പറഞ്ഞാല് പണ്ടത്തേത് പണ്ടത്തേതെന്നു പറഞ്ഞാൽ അത് ചെയ്ത് അവര് പറയുമ്പോള് നമ്മള് അത് അംഗീകരിക്കണം എന്നാലേ അവർക്കൊരു ബേജാറില്ലാത്തതുപോലെ ആവുന്നുള്ളൂ